ബൈക്ക് യാത്രയെന്നു പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കഴിപ്പിക്കുന്ന ഒന്നാണ് ബൈക്കിൽ യാത്ര ചെയ്യാക എന്നുള്ളത് പ്രത്യേകിച്ചൊരു സംഘത്തോടൊപ്പം ഒരുമിച്ച് ബൈക്കിൽ ട്രിപ്പ് പോകാനുള്ള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിപൊളിയുള്ള കാര്യമാണ് സംഭവം നല്ല രസമാണ് ഇത് പ്രത്യേകിച്ചൊരു പരിചയം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുടെ കൂടെ ഒരു പരിചയ ജീവിതത്തിൽ ഇതുവരെ കണ്ടു മുട്ടാത്ത കുറേ ആൾക്കാരുടെ കൂടെ ബൈക്കിൽ യാത്ര നല്ലൊരു കാര്യമാണ് നല്ല കാര്യമെന്നു പറഞ്ഞാൽ ഒരു വേറിട്ട അനുഭവമായിരിക്കും ജീവിതത്തിൽ ഇതു വരെ അനുഭവിക്കാത്തൊരു വേറിട്ടൊരനുഭവം ബൈക്കിൽ ഏതൊരു കാലാവസ്ഥയും ചൂടായാലും മഴയത്തായാലും തണുപ്പിലായാലും ബൈക്കിൽ നിന്ന് പ്രകൃതിൻ്റെ ആ ഒരു ആസ്വാദനം ഭംഗി ശരിക്കാസ്വദിച്ചു കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ബൈക്കിൽ യാത്ര ചെയ്യാൻ കഴിയും ഒരു നമുക്കേതൊരു ചെറിയ വഴിയിൽ കൂടെയും ഉള്ളിൽ കൂടി ചെറിയ ചെറിയ കൊണ്ടു പോകാൻ കഴിയില്ല ബൈക്കിലൂടെ അവിടെയൊക്കെ നമുക്ക് പോകാൻ കഴിയും ആ നമുക്കെന്തോ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും പിന്നെയീ ബൈക്ക് റേസിങ് കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡെയിഞ്ചറാണതൊക്കെ ഡേഞ്ചർ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടി നാട്ടിൽ റോട്ടിൽ കൂടെയൊക്കെ റയ്സിങ് നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെയിഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഓപോസിറ്റ് കുറേ വണ്ടികൾ പൊയ്ക്കൊണ്ടു നിൽക്കുന്നുണ്ടാകും സോ ഓടിക്കുന്ന നമ്മളുടെ ഒരു മൈൻഡ് എന്താ വെച്ചു കഴിഞ്ഞാൽ ഒന്നാമത് എത്തുവോളം ഉണ്ടാകും അതിൽ നമ്മളുടെ സൈഡിൽ കൂടി വരുന്ന വണ്ടികൾ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നിന്ന് നമ്മൾ കണ്ണും കാണില്ല അപ്പം അതൊരു വലിയ ദുരന്തത്തിലേക്ക് മാറാൻ ചാൻസുണ്ട് ഇതിപ്പം റെയ്സിങ്ങെടുത്തു റേസിങ്ങിനായിട്ടുള്ള ട്രാക്കുണ്ടാകും അവിടെ വെച്ചൊരു ബൈക്കിൻ്റെ ഫുൾ കോസ്റ്റ്യൂം ഇട്ടിട്ട് സേഫ്റ്റി കോസ്റ്റ്യൂം ഇട്ടിട്ട് ബൈക്ക് റെയ്സിങ്ങ് വന്നു നടത്തുക പറഞ്ഞാൽ ഒരു രസമാണ് നമ്മൾ ഫുൾ സേഫ്റ്റി ആണ് മറ്റുള്ള നമ്മളായിട്ട് അപകടങ്ങൾ വരുത്താറില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ബൈക്ക് റേസ് നടത്തുമ്പോൾ അത് തെറ്റില്ല അത് നല്ലൊരു റിസ്ക് രസമുള്ള കാര്യമാണ് റേസ് നടത്തില്ലേ ഒന്ന് മറ്റേ ടൂറാ ബൈക്കിനെ കുറിച്ച് ശരിക്ക് അറിയാവുന്നേ ഫസ്റ്റിലേക്ക് എത്താം അതാണ് റെയ്സിങ്ങിൻ്റെ പ്രത്യേക അതൊരു നല്ലൊരുനുഭവമാണ് റയ്സിങ്ങിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് ഇത് വേറെ തന്നൊരു ഫീലാണ് പക്ഷേ ഫുൾ സേഫ്റ്റി കോസ്റ്റ്യൂം കാര്യങ്ങൾ എല്ലാം ധരിച്ചിട്ടാകണം എന്തു ചെയ്യുക ആ റെയ്സിൽ പങ്കെടുക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഈ സംഘടിത ബൈക്ക് കേപ്ചറുകളും ഗ്രൂപ്പായിട്ട് കുറേ ആൾക്കാർ ഒരു പത്താൾക്കാർ അഞ്ച് ബൈക്കിൻ മേൽ ട്രിപ്പ് പോകണം പറഞ്ഞാൽ അതും അത് വല്ലാത്തൊരനുഭവമാണ്